ഞാൻ സെലക്റ്റ് ചെയ്ത പ്രൊഡക്റ്റെന്ന് പറയുന്നത് മൊബൈൽ ഫോണായിരുന്നു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാ ഫോൺ എന്ന് പറയുമ്പോൾ ഒട്ടും യൂസ്ഫുൾ അല്ല കാരണം എന്താച്ചാല് ഞാൻ ഓപ്പോയായിരുന്നു സെലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എന്താ തോന്നിയേച്ചാൽ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത ഫോൺ ഞാൻ ഇപ്പം മാറ്റാൻ കാരണമെന്നു പറയുന്നതുതന്നെ അതിൽ ചാർജ് ഒട്ടും നിൽക്കാത്തതാണ് ഞാൻ ഇതിനു മുമ്പ് ഐ ഫോണായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറി എല്ലാവരും പറഞ്ഞു ഓപ്പോ നല്ല സെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഇത് എടുത്തത് പക്ഷെ ഐഫോൺ ആണെങ്കിൽ പോലും അതിൽ ഒട്ടും ചാർജ് നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് ഇപ്പം ഇതെടുത്തത് പക്ഷെ ഇത് എടുത്ത് കഴിഞ്ഞപ്പം ഇപ്പം അതിനേക്കാൾ വലിയ പ്രശ്നമായി അതിനേക്കാൾ കഷ്ടാമായിട്ടാണ് ഇതിൽ ഒട്ടും തന്നെ ചാർജ് നിൽക്കുന്നില്ല ഞാൻ എന്ന് പറയുന്ന ഒരു ഗെയിം ഒക്കെ കളിക്കുന്ന ഒരു പേഴ്സണാണ് ഞാൻ ഫ്രീ ഫയറ് പബ്ജി അങ്ങനെ എല്ലാ തരത്തിലുള്ള ഗെയിമുകളും കളിക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഒരു അരമണിക്കൂർ പോലും അല്ല ഞാൻ ഒരു കണ്ടിന്യുസ് ആയിട്ട് ഇരുന്ന് എല്ലാ കളിയും കളിക്കുന്ന ഒരാളാണ് പക്ഷെ ഇപ്പം ഞാൻ ഒരു അരമണിക്കൂറർ യൂസ് ചെയ്യുമ്പത്തേനും തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചാർജ് ഇറങ്ങി പോകുകയാണ് അതുപോലെത്തന്നെ ചാർജ് കേറാൻ ഭയങ്കര താമസമാണ് അത് മാത്രല്ല ക്യാമറാ ക്ലാരിറ്റി വല്യ കൊഴപ്പില്ലാ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വല്യ രസോന്നുല്ല ക്യാമറേൽ എടുക്കുന്ന പിക്ക് ഭയങ്കര ബ്ലർ ആയിട്ട് എനിക്ക് തോന്നുന്നു ണ്ട് പിന്നെയെന്ന് പറയുന്നത് ഇപ്പം പറയുകയാണെങ്കിൽ മൊബൈൽ ഞാൻ ഇപ്പോൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കൂടി വേറെ സൗണ്ട് ഒക്കെ കേൾക്കുന്നു അതിൻ്റെ സ്പീക്കറിന് മൊത്തത്തിൽ എന്തൊക്കെയോ കംപ്ലെയിന്റ് ഉണ്ട് പിന്നെയെന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് എന്റേൽ ആകെ കൂടി ഒര് ഫിഫ്റ്റി ജിബി ഉണ്ടായിരുന്നു പണ്ടത്തെ ഫോണിലെ അപ്പം ഞാൻ ഇതിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്റ്റോറേജ് മൊത്തം മുക്കാൽ ഭാഗവും കംപ്ലീറ്റായി ഇപ്പം ഈ വൺ മന്ത് യൂസ് ചെയ്തതിൻ്റെ ഓഫീസിലെ കുറച്ച് ഫയൽസും ഡോക്യുമെൻറ്റ്സൊക്കെ ഇണ്ടായിരുന്നു അതെല്ലാം കൂടി ഡൗൺലോഡ് ചെയ്തപ്പത്തേനും ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയൊക്കെ ഫുള്ളായി ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ പോയി ക്ലിയർ ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ആക്കുന്നത് അത്രക്ക് ബുദ്ധിമുട്ടാണ് എനിക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് തോന്നിയത് ഞാൻ സെലക്റ്റ് ചെയ്ത ഈ പ്രോഡക്റ്റ് അതായത് ഈ മൊബൈൽ ഫോൺ എനിക്കൊട്ടും യൂസ്ഫുൾ ആകുന്നില്ല എന്നാണ്